നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ സമ്പാദ്യമായി കുളിപ്പിക്കുകയും അവരെ അവരുടെ ആറു അമൻ അവർ താമസിക്കുന്ന റൂമുകൾ വൃത്തിയാക്കുകയും കറക്റ്റിനുള്ള കുത്തി വെയ്പുകളും എല്ലാം എടുത്തു തന്നെയാണ് വളർത്തേണ്ടത് പിന്നെ മൃഗങ്ങൾക്ക് ദോഷമായി ബാ ബാധിക്കുന്ന ചില രോഗങ്ങൾ ഉണ്ട് അതു മനുഷ്യനെയും ബാധിക്കുന്നതാണ് പട്ടി കടിച്ചാൽ നമുക്ക് പേ വിഷബാധയുണ്ടാകും അതിനുള്ള ഇൻജെക്ഷൻ കുത്തി വെയ്പ്പുകളെല്ലാം ഇപ്പോൾ നിലവിലുണ്ട് അതു പട്ടിക്കു യഥാ സമയം കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല പിന്നെ മൃഗങ്ങൾക്കു പല പല രോഗങ്ങളുണ്ടാകുന്നു ചില രോഗങ്ങളൊന്നും മനുഷ്യരിൽ പകരാറില്ല ശരിക്കും നാം കറക്റ്റായിട്ട് അവരെ നമ്മൾ നമ്മൾ വൃത്തിയായി നടക്കും പോലെ അവരെയും വൃത്തിയാക്കി നട നടത്തിയാൽ ഈ അതൊരു വാ കുഴപ്പവും ഉണ്ടാകാതെ നമുക്ക് ഇ ഇതാകാം പറ്റും ചില രോഗങ്ങൾ മാത്രമേ നമുക്ക് വേണ്ടി നമ്മളിലേക്കു പകരുകയുള്ളു വേറൊരു ദോ ദോഷവും ഉണ്ടാകാറില്ല